ഞാനെപ്പോഴും ഗ്രാമത്തില് താമസിക്കാനിഷ്ടപ്പെടുന്നു എന്തു കൊണ്ടെന്ന് നഗരങ്ങളില് ഒത്തിരി എന്താ പറയുന്നത് ഭയങ്കര സൗകര്യങ്ങൾ കൂടുതലാണ് ഗ്രാമങ്ങളെ അപേക്ഷിച്ച് പക്ഷെ ഗ്രാമങ്ങളിലെപ്പോഴും അതിൻ്റേതായ ശാന്തതയും സ്വസ്ഥതയും സമാധാനവും നമുക്ക് അനുഭവിക്കാന് പറ്റും ഗ്രാമം നഗരങ്ങളിലോട്ടു പോകും തോറും തിരക്കുകൾ കൂടുക ആള്ക്കാർ തമ്മിലുള്ള അകലം കൂടുന്നു വീടുകള് തമ്മിൽ അടുത്താണെന്നു പറഞ്ഞാലും അടുത്തുള്ള വീട്ടുകാരെ പരിചയമില്ലാത്തവസ്ഥ എല്ലാവരും അവരുടെ ജോലി തിരക്കുകളായിട്ട് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ടു പോകുന്നു അതുപോലെ മലിനീകരണം പുക പുക മലിനീകരണം ജല മലിനീകരണം നല്ല തിരക്കുകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പക്ഷെ ആ ഗ്രാമത്തിലേയ്ക്കു മാറും തോറും ഗ്രാമത്തിലന്തരീക്ഷം നല്ല വെള്ളം നല്ല വായു നഗരങ്ങളിലപേക്ഷ ഗ്രാമങ്ങളിലാണ് നല്ല വായുവും നല്ല ജലം താമസിക്കാൻ എന്തുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗ്രാമ ഒരു സിനിമയിൽ പറയുന്ന പോലെ പച്ചപ്പ് ഹരിതാഭം എല്ലാം നമുക്കാസ്വദിക്കണെ നമ്മൾ നഗരങ്ങളിൽ നിന്നു മാറി ഗ്രാമങ്ങളിലേയ്ക്കു തന്നെ ജീവിക്കുക കാരണം എല്ലാവരും സൗകര്യം അനുസരിച്ചാണ് നഗരങ്ങളിലേയ്ക്കു പോകുന്നത് അവിടെ അതുപോലെ ഇപ്പം നമ്മൾ റോഡ് എടുക്കുകയാണെങ്കില് തന്നെ നഗരങ്ങളിലെ റോഡുകളിൽ വൈകുന്നേരങ്ങളെ ആ വേളയില് നല്ല ബ്ലോക്കാണ് അവരുടെ എല്ലാവരും സ്കൂളുകളിലേക്ക് രാവിലെ പോകുന്നു ഓഫീസുകളിലേക്കു പോകുന്നു ആര്ക്കും നേരമില്ല തിരക്ക് അങ്ങനെ എല്ലാം അതും എനിക്കിഷ്ടപ്പെടുന്നത് ഗ്രാമങ്ങളിൽത്തന്നെ താമസിക്കാനാണ് ഗ്രാമങ്ങളിൽ കുറേ ശാന്തമാണ് ഉള്പ്രദേശങ്ങളൊക്കെ ആകുമ്പം നമ്മൾ പുറത്തെ ബിസി ലൈഫില് നിന്നൊത്തിരി കാം ആന്ഡ് ക്വയറ്റാണ് നഗരങ്ങളിൽ പോകുമ്പം അതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടൊരു വെള്ളത്തിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക എന്തെങ്കിലും വാട്ടര് കണക്ഷനിലെന്തെങ്കിലും തകരാർ സംഭവിക്കുകയാണേല് അതു നന്നാക്കാന് തന്നെ സമയങ്ങളേറെ എടുക്കും കാരണം ആ സമയത്തൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലാണെ നമ്മുക്ക് സ്വന്തമായിട്ട് കിണർ കാണും എല്ലാ വീടുകളിലും തന്നെ കിണറുകളും കാര്യങ്ങളും കാണും അപ്പം നമുക്ക് ഒരു പൈപ്പിന് പൈപ്പ് കണക്ഷനില് വെള്ളത്തിനെന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ തന്നെ നമുക്ക് കെണറ്റിൽ നമുക്ക് വെള്ളം ലഭിക്കും പിന്നതു പോലെ തന്നെ മാലിന്യം നമ്മുടെ ഇപ്പം ഫുഡ് വേസ്റ്റുകളാണെങ്കിലും അല്ലാത്ത ഇനോര്ഗാനിക് വേസ്റ്റാണെങ്കിലും നമുക്ക് ഡീപ്പ് കമ്പോസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഗ്രാമങ്ങളില് സാധിക്കും നഗരങ്ങളിലാകുമ്പം അത് മുന്സിപ്പാലിറ്റിയുടെ കോപ്പ്രേഷനും വന്നെടുത്തോണ്ട് പോകാ അത് ശരിയായ രീതീലെടുത്തോണ്ട് പോയില്ലെങ്കില് നമ്മക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതവിടെ ഇരുന്നു പ്രാണികളും അതും ഇതുമെല്ലാം വരും അപ്പോഴത്തേന് നമുക്ക് പിന്നെ ഒരു ഡിസ്കംഫോട്ട് അതില് നിന്നു ലഭിക്കുന്നു അതു കൊണ്ട് ഞാന് നഗരങ്ങളില് നിന്ന് ഗ്രാമങ്ങളില്ത്തന്നെ താമസിക്കാനാണ്